വേറെ സ്ഥലങ്ങളിലെ സ്കൂളുകളെ അപേക്ഷിച്ച് ഞങ്ങളുടെ ഭാഗത്തുള്ള സ്കൂളെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സിറ്റി ആയാ ഏരിയേലുള്ള സ്കൂളുകളാണ് അതു കാരണം അവിടെ ഇംഗ്ലീഷിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് അത് കുറച്ചൊരു മലയാളം കൂടെ നമ്മുടെ പ്രാദേശിക ഭാഷയായ മലയാളം കൂടി പഠിപ്പിക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ഇംഗ്ലീഷ് എന്തായാലും പുറത്തൊക്കെ പോകുമ്പോൾ കുട്ടികൾക്കാവശ്യമാണ് അതും വേണം പക്ഷേ അതിൻറ്റെ കൂടെ നമ്മുടെ നാട്ടിലെ ജോലി ചെയ്യാനും ഗവൺറ്മെൻറ്റ് സർവ്വീസിലൊക്കെ ജോലി ചെയ്യാനൊക്കെ ഇപ്പം മലയാളത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് കാരണം നമ്മുടെ പ്രദേശിക ഭാഷയും കൂടെ പഠിപ്പിക്കണം അതുപോലെ തന്നെ കുട്ടികളെ നന്നായി കെയർ ചെയ്യാൻ വേണ്ടീട്ട് എണ്ണം കുറക്കണം ഓരോ ക്ലാസ്സിലത്തെയും എണ്ണം കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും ഒരുപോലെ കെയർ ചെയ്യാൻ പറ്റും ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളെന്ന്ക്കെ പറഞ്ഞാൽ വൈകാരികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ചെറുപ്പം മുതലേ അനുഭവിക്കുന്ന കുട്ടികളാണ് അച്ഛൻ അമ്മയൊക്കെ ജോലിക്ക് പോകുന്ന കുട്ടികളാണ് അപ്പം അവരെ കെയർ ചെയ്യാൻ വീട്ടിൽ ആൾക്കാരുണ്ടാവില്ല അതിൻറ്റെയൊക്ക ഫ്രസ്ട്രേഷൻ അവർ കാണിക്കുക സ്കൂളിൽ വന്നിട്ട് അവരുടെ സമപ്രായക്കാരായ കുട്ടികളുടെ അടുത്തായിരിക്കും അപ്പതിന് ടീച്ചേഴ്സിന് കുറച്ചും കുടെ കെയർ ചെയ്യാൻ വേണ്ടീട്ട് എണ്ണം കുറെയ്ക്കാം എന്നുള്ളതും നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മുടെ പ്രദേശത്ത് സ്കൂളുകളെന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് പറയാനുള്ളത് അവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്റ്റിവിറ്റീസിനൊക്കെ കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മറ്റ് പട്ടണങ്ങളിലെ സ്കൂളുകളെ അപേക്ഷിച്ച് ഇവിടെയുള്ള സ്കൂളുകൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്